ഞാൻ എൽ പി സ്കൂളിൽ പഠിക്കുമ്പോളായിരുന്നു അവിടെ എല്ലാവരും അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏട്ടന്മാരൊക്കെ ഓരോ വസ്തുക്കളുണ്ടാക്കുന്നതും വോളിബോൾ നെറ്റ് മേക്കിങ്ങും ക്ലേ മോഡലും എങ്ങനെ പല പല സാധനങ്ങൾ ഉണ്ടാക്കുന്നത് കണ്ട് അപ്പോൾ എനിക്കും ഒരു കൗതുകം തോന്നിയിരുന്നു ഇതൊക്കെ ഉണ്ടാക്കണമെന്ന് അങ്ങനെ ഇരിക്കെ അഞ്ചാം ക്ലാസ്സിലെ വോളിബോൾ നെറ്റ് മേക്കിങ്ങ് കെട്ടുന്ന ഒരേട്ടനെ സുഖമില്ലായതുകൊണ്ട് നാലാം ക്ലാസ്സിലെ നമ്മളോട് വന്ന് പറഞ്ഞു ഇങ്ങനെ പരിപാടി ചെയ്യണമെന്നൊക്കെ അങ്ങനെ എന്നെ തിരഞ്ഞെടുക്കുകയും വോളിബോൾ നെറ്റ് മേക്കിങ്ങ് വല കെട്ടും വോളിബോളിൻ്റെ വല കെട്ടാൻ എന്നെ നിയമിച്ചു ഞാനത് എൻ്റെ ഗുരുനാഥനായ മാഷ് എനിക്ക് വല കെട്ടുന്നത് പറഞ്ഞ് തരുകയും ഞാൻ അതുപോലെ കെട്ടി പഠിക്കുകയും ചെയ്തു എന്നിട്ട് അവിടുന്ന് ഞാൻ ശാസ്ത്ര ശാസ്ത്ര മേളക്ക് പങ്കെടുക്കുകയും അവിടെ ഒന്നാംസ്ഥാനത്തോടുകൂടി വിജയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത് ആ ഒരു പഠിച്ച ആ ഒരു വല കെട്ടൽ ഞാനത് യൂ പിയിലും ഹൈ സ്കൂളിലും തുടർന്നു വന്നിരുന്നു യൂ പിയിലും ഞാൻ പോയി പക്ഷേ എൽ പി സ്കൂളിൽ മാഷുമാരായിരുന്നു എല്ലാ സാധനങ്ങളും വാങ്ങി തന്നത് യൂ പിസ്കൂളിൽ എത്തുമ്പോൾ അത് സ്വന്തമായി വാങ്ങണം ഹൈ സ്കൂളിലും അങ്ങനെ അങ്ങനെ തന്നെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഹൈ സ്കൂളിൽ ഞാൻ പങ്കെടുത്ത് പങ്കെടുത്തില്ല എൻ്റെ ഞാൻ പഠിച്ച കല ഇപ്പോൾ ഹയർ സെക്കണ്ടറി എത്തിയനേരം ഞാൻ ജില്ലാ തലത്തിൽ പോയി പിന്നെ ജില്ലാ തലം ജില്ലാ ജില്ലാ തലം വരെ എത്തിയിരുന്നു അത് അതുകൂടാതെ എനിക്ക് കിട്ടിയ ആ ഒരു വല കെട്ടാനുള്ള ആ കഴിവ് ഞാൻ അത് വേറെ ആൾക്ക് പകർന്ന് കൊടുക്കുകയും ചെയ്തിരുന്നു കൂടാതെ യു പി സ്കൂൾ ഞാൻ ഹയർ സെക്കൻഡറിയിൽ പോയി വല കെട്ടാൻ പോയത് സ്വന്തമായി കയ്യിൽ നിന്ന് പൈസ എടുത്ത് അതിൻ്റെ വലകളും വല കെട്ടുന്ന സാധനങ്ങളുമൊക്കെ വാങ്ങിയായിരുന്നു പോയിരുന്നത്